സാങ്കേതികവിദ്യയെ കുറിച്ച് പഠിക്കുന്നത് ഓരോരുത്തർക്ക് അവരുടേതായ ഇൻറ്ററെസ്റ്റ് അനുസരിച്ചാണ് അത് ഇപ്പം പഠനം അടിസ്ഥാന വിഷയം ആയിരിക്കണമെന്ന് നിർബന്ധിക്കാൻ പറ്റത്തില്ല കാരണം പഠനരീതി പഠനം ഒക്കെ കഴിഞ്ഞവർ എന്തായാലും അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ തന്നെ ട്രൈ ചെയ്തേ പറ്റുള്ളൂ അപ്പം പഠിക്കുന്നത് അനുസരിച്ച് സാങ്കേതികവിദ്യ ഓരോ കാലങ്ങൾ കഴിയും തോറും അതിന് വീണ്ടും വീണ്ടും മോഡേൺ ടെക്നോളജിസ് വന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം പ്രായമായവരെ കുറേ ഒക്കെ നമ്മൾ അവോയിഡ് ചെയ്യും പിന്നെ കുട്ടികൾ ആണെങ്കിൽ അതിനെ കുറിച്ചൊക്കെ അറിയുമ്പോൾ അവർക്ക് കുറേകൂടെ ക്യൂരിയോസിറ്റി ആണ് അതിനെ കുറിച്ച് കൂടുതൽ ചെയ്യാൻ അറിയാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു അതിൻ്റെ സാങ്കേതിക വിദ്യയെ അത് പ്രാക്ടിക്കൽ ലൈഫില് ഉൾപ്പെടുത്താനുമെല്ലാം ഒത്തിരി ഏറെ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ യുവജനങ്ങൾ അവർ കൂടുതലും ഫോൺ ഇൻറ്റർനെറ്റ് വഴിയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് തന്നെ അപ്പം എല്ലാവർക്കും അത് അടിസ്ഥാന വിഷയമാക്കണം എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഇത് അവനവൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് അവനവന് കാര്യങ്ങൾ ചെയ്യുകയും കണ്ട് പഠിക്കുകയു ചെയ്യുകയാണ് ചെയ്യുന്നത്